ആദ്യ കാലങ്ങളിൽ ഒന്നും എനിക്ക് ഈ ഡ്രോയിങ് ചെയ്യാനായിട്ടുള്ള ടൂൾസും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട് അത് വാങ്ങിക്കാനായിട്ടുള്ള ഒരു ഇത് ഇല്ലായിരുന്നു പിന്നീടാണ് ഞാൻ അതൊക്കെ വാങ്ങിക്കാൻ തുടങ്ങിയതും ഓരോ ടൂൾസ് ആയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയതും ടൂൾസിനെ പറ്റി അറിയാൻ തുടങ്ങിയതും നമ്മളിപ്പോൾ വെറുതെ ഒരു ഡ്രോയിങ് ചെയ്യുമ്പോൾ നമുക്ക് അത്ര ഒരു പെർഫെക്ഷൻ കിട്ടത്തില്ല അപ്പോൾ ഈ ടൂൾസും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തു വരച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്ക് ആ ഒരു ഞാൻ വരയ്ക്കുന്ന ഡ്രോയിങ്ങിനോട് എനിക്ക് തന്നെ ഒരിത് തോന്നി തുടങ്ങിയത് പിന്നെ വരച്ചു വരച്ചു വരച്ചാണ് നമ്മളിത് മെച്ചപ്പെടുന്നത് ആദ്യ ഒന്നും ഞാൻ വരക്കുമ്പോൾ തന്നെ എനിക്ക് എന്നത് തോന്നാറുണ്ട് ഇത് എന്താണ് എന്നൊക്കെ പക്ഷേ ഇപ്പോൾ അതെല്ലാം ശരിയായി വന്നു ഇപ്പം എല്ലാം നിരന്തരായിട്ടുള്ള നമ്മൾടെ പരിശീലത്തെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇതെല്ലാം ശരിയായി വരുത്തൂളൂ എങ്ങനെ ചെയ്യുന്നു അത്രയും പെർഫെക്ഷനിൽ നമുക്കത് കിട്ടും ഇപ്പോൾ ഒരു വട്ടം വരച്ചു എന്നു നമുക്കത് ശരിയാവണം എന്നില്ല അത് ശരിയായില്ല എന്നെക്കൊണ്ട് പറ്റത്തില്ല ചെയ്യാൻ പറ്റത്തില്ലാന്ന് വിചാരിച്ച് കളയുകയാണെങ്കില് നമുക്ക് ഒരിക്കലും അത് വരയ്ക്കാൻ പറ്റത്തില്ല പണ്ട് കാലത്തൊക്കെ ഞാനാണെങ്കിൽ പതിപ്പിച്ച് വരെ വരച്ചിട്ടുണ്ട് പതിപ്പിച്ച അങ്ങനത്തെ രീതിയിൽ ഞാൻ വരയ്ക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്യുമ്പോഴത്തേനും നമ്മൾ വിചാരിക്കും പതിപ്പിച്ച് വരച്ച് അങ്ങനെ പടം വരയ്ക്കുക എന്നുള്ളത് ശരിയല്ല കുഞ്ഞുകാലത്ത് ഒക്കെ നമ്മളത് ചെയ്യും പിന്നെ അതിനു മാറി ഞാൻ ഓരോ പടങ്ങളും നോക്കി വരയ്ക്കാൻ തുടങ്ങി നോക്കി വരച്ചപ്പോൾ നോക്കി വരയ്ക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നി ഓ ഏകദേശം അതെ രൂപത്തിൽ വന്നു പിന്നെ അതിന്നു വിട്ടു പിന്നെ അല്ലാതെ ഞാൻ എനിക്ക് ആയിട്ടുള്ള രീതിയിൽ ഇപ്പോൾ ഓരോ പ്രകൃതിയിലാണെങ്കിലും ഓരോ മലയ് കുന്ന് അങ്ങനെയൊക്കെ വരച്ചു പിന്നെ പിന്നെ ഞാൻ എൻ്റെ കോൺസെപ്റ്റില് ആലോചിക്കും പിന്നെ ഓരോരുത്തരുടെ രൂപങ്ങളും വരയ്ക്കാൻ തുടങ്ങി അങ്ങനെ പല പല രീതി ചെയ്തു തുടങ്ങി പിന്നെ എനിക്ക് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരയ്ക്കുമ്പോൾ തോന്നിയിട്ടുള്ളത് ഫെയ്സ് വരയ്ക്കുമ്പോൾ കണ്ണും മൂക്കും ചുണ്ടൊക്കെ വരയ്ക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി മ്യൂറൽ ആയിട്ട് ചെയ്യുമ്പോഴാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് ചെയ്യുമ്പോൾ പിന്നീടത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പരിശീലത്തെ ബേസ് ചെയ്തിട്ടാണ് അതെല്ലാം ശരിയായിട്ട് വന്നത് നിരന്തരം നമ്മള് പ്രാക്ടീസ് ചെയ്യുന്ന പോലെ ഇരിക്കുന്ന നമ്മുടെ കൈ വഴങ്ങുന്നതും അത് ശരിയാവുന്നതു പിന്നെ അത് പ്രോപ്പർ ആയിട്ട് വരച്ചു വരച്ചു വരച്ചു ലാസ്റ്റ് എല്ലാം കറക്റ്റ് ആയി വന്നെ തുടർന്ന് ഞാനിപ്പോൾ നല്ല രീതിക്ക് വരക്കുന്നുണ്ട് അതുപോലെതന്നെ എല്ലാവരും ആ രീതിക്ക് വരച്ച് തുടങ്ങുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ടൂൾസ് എന്ന് വെച്ചാൽ നമുക്ക് ഡ്രോയിങ്ങിനായിട്ട് പലതരം ടൂൾസ് ഉണ്ട് വരയ്ക്കാൻ ആണെങ്കിൽ ഷേഡസ്ന ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിട്ടാണെങ്കിലും എല്ലാത്തിനും പല പല പെൻസിലും ഷെഡിങ്ങിനും സ്മടജർ കാര്യങ്ങളെല്ലാം ഉണ്ട് അതെല്ലാം ബേസെയ്ത് വരച്ച് സെറ്റ് ചെയ്യുമ്പോൾ ഓക്കേ ആണ്